ഡ്രസ്സിൻ്റെ ഷോപ്പ് അല്ലേ നമുക്ക് കുറച്ച് എംബ്രോയ്ഡറി ചെയ്ത ഷാൾ അങ്ങനത്തെ ദുപ്പട്ട കാര്യങ്ങളൊക്കെ വേണമായിരുന്നു ഉം കോട്ടൻ്റെ ആയിരിക്കണം അപ്പം നിങ്ങൾ എങ്ങനെയാണ് കോട്ടൻ്റെ മെറ്റീരിയൽ മാത്രമേ തരുള്ളോ അതോ നമുക്ക് എം എംബ്രോയിഡറി ചെയ്തു തരാൻ അവിടെ ആൾക്കാരുണ്ടോ എങ്ങനെയാണ്

ആണല്ലേ ആ അപ്പം നമുക്ക് നമുക്ക് കുറച്ച് ബൾക്ക് ആയിട്ട് വേണം അത് കടയിലേക്ക് വേണ്ടിയാണ് അപ്പോൾ നമ്മൾ അതായത് നമുക്ക് കോട്ടൻ്റെ മെറ്റീരിയൽസ് ഒക്കെ കുറേ അവൈലബിൾ ആയിട്ടുണ്ടോ അവിടെ ആ ആ ആ അതായത് നമുക്ക് മൾട്ടി കളറുകളായിട്ടുള്ള അതായത് മൾട്ടി കളർ ദുപ്പട്ടാസ് ഉണ്ടാവില്ലേ കോട്ടൺ ആ അപ്പം അതിൽ എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എംബ്രോയി എംബ്രോയ്ഡറി ഡിസൈൻ ഒക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്ത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്തുതരാം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നമുക്ക് അതിൽ എംബ്രോയ്ഡറി ചെയ്ത് ചെയ്തു തരുവോ അപ്പം നമുക്ക് അതായത് നമുക്ക് കുറച്ച് ബൾക്ക് ആയിട്ട് വേണം ഒരു നൂറു ദുപ്പട്ടാസ് വേണം അപ്പം നമുക്ക് ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾ ചെയ്ത് തരുവോ നിങ്ങളുടെ അടുത്ത് കുറേ പേരുണ്ടോ ഇങ്ങനെ എംബ്രോയിഡറി ചെയ്യുന്നത് ആണല്ലേ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് കോട്ടൻ്റെ അതായത് കോട്ടൻ്റെ മെറ്റീരിയലിന് മാത്രം എങ്ങനെയാണ് മീറ്ററിന് എങ്ങനെയാണ് നമ്മൾ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ നമുക്കെന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ആ ആണല്ലേ ആ നമുക്ക് എംബ്രോ എംബ്രോയിഡറിക്ക് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ റേറ്റ് പറയുന്നത് ആണല്ലേ ആ ആ ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ മൺഡേ അങ്ങോട്ട് വരാം എന്നിട്ട് നമുക്ക് എങ്ങനെ ഏതൊക്കെയാണ് വേണ്ടത് മൾട്ടി കളർ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് സെലക്റ്റ് ചെയ്തിട്ട് എംബ്രോയിഡറി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ അവിടെ വന്നിട്ട് തന്നെ എല്ലാം പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഒന്ന് ആ ചെയ്ത് തന്നാൽ മതി കേട്ടോ ആ ഓക്കേ എന്നാൽ ഓക്കെ താങ്ക് യൂ